നമ്മുടെ പ്രദേശത്തെ ഗോത്രകലകളേതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടേതായ ഡാൻസ് കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ അവരുടേതായ പാട്ട് അങ്ങനെയുള്ളതൊക്കെയുണ്ട് ഇപ്പംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പ്രശസ്തമായിട്ടുള്ള ഒരു സംഭവംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നൂര്ന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതിപ്പം അതായത് അവർ ഉണ്ടാക്കിയ പല സാധനങ്ങൾ അവരുടെ ഓരോ കല്യാണത്തിൻ്റെ അതായത് അതൊക്ക നമുക്കിങ്ങനെ ആർട്ട് രൂപത്തിൽ ഇങ്ങനെ കാണിച്ചരും അത് നമുക്ക് അതായത് നമുക്ക് അതായത് നമുക്ക് സ്കൂളുകളിൽ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ അത് ഞാൻ കാണാൻ പോയിട്ടുണ്ടു അടിപൊളിയാണ് അവരുടെ ഓരോ കാര്യങ്ങളും ഇതൊക്കെ പിന്നെ ഒരുപാടുണ്ട് അപ്പം അതൊക്കെ ഞാനൊരുപാട് കാണാൻ പോയിട്ടുണ്ട് അതൊക്കെ അടിപൊളിയാണ് അടിപൊളിയങ്ങനെ ആർട്ടൊക്കേ ചെയ്തുവെച്ചേക്കുന്നത് കാണാൻ അടിപൊളിയാണ് അപ്പം അത് കുറെ പേര് അതായത് സ്കൂളുകളിൽ പഠിക്കാനും അങ്ങനെ അതായത് കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ളോണ്ട് സ്കൂളുകളിലൊക്കെ വന്നിട്ടുണ്ട് എന്നൂര്ന്നാണ് അതിനു പറയാ ഗോത്രകലാപരിപാടകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് ഒരുപാട് അതൊക്കെ നമുക്ക് സ്കൂളുകളിലൊക്കെ ഗോത്രകലാപരിപാടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് അങ്ങനത്തയൊക്കെ കാണാനൊക്കെ നമ്മൾ ഒരുപാട് പോയിട്ടൊക്കെയുണ്ട്